ശരീര ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് കാലത്തെന്ന് പറയുവാണെങ്കിൽ നമുക്ക് വീട്ടുജോലികളിൽ തന്നെ ഇഷ്ടംപോലെ ചെയ്യാമായിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് അമിതമായ വണ്ണം ഉണ്ടാകാറില്ല പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കോരൽ അതേപോലെ അരി പൊടിക്കൽ ആട്ടൽ ഇതൊക്കെ നമ്മുടെ ജോലി ആയിരുന്നു അരയ്ക്കൽ പിന്നെ തുണി അലക്കൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഭാരിച്ച ജോലികൾ നമ്മൾ ചെയ്തത് കൃഷിപ്പണിയായാലും നമ്മൾ ഒരുപാട് പുറത്തിറങ്ങി ചെയ്യാറുണ്ട് അന്നത്തെ കാലത്ത് ഇതേപോലെ ഭാരം കൂടുന്ന അവസ്ഥ ഇല്ലായിരുന്നു എല്ലാം മിതമായ രീതിയിലായിരുന്നു ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പണികളും ചെയ്യുന്നില്ല അതുകൊണ്ട് വണ്ണം ആണെങ്കിൽ കൂടിവരികയാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്തെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് ജിം ചെയ്യാറുണ്ട് യോഗ ചെയ്യാറുണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉള്ള ഒരു വഴി ഇതാണ് യോഗ ഇന്നത്തെ കാലത്ത് യോഗ ചെയ്ത് തടി കുറയ്ക്കാറുണ്ട് ജിമ്മും അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു